ഇപ്പം കേരളത്തിലെ കലാ കരകൗശല മേഖല അതായത് അങ്ങനെയുള്ള അതായത് കരകൗശല ഉപഭോ ഉപഭോക ഉപഭോഗത്തിലെ ലഭ്യത അല്ലെങ്കിൽ വിലയുടെ പ്രശ്നമൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് കരകൗശല വസ്തുക്കൾ ഇപ്പം അതായത് നമുക്ക് ഒരുപാട് വസ്തുക്കളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചിത്രം വര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് കൊത്തുപണി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങക്കൊക്കെയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര നമുക്ക് കഷ്ടപ്പാടും അതായത് ബുദ്ധിമുട്ടും ഉളവാക്കി നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് അതായത് നമുക്ക് ഇപ്പം നമുക്കിപ്പം കൊത്തു പണിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പം ഒരു ഇതിന് വേണ്ടി നമ്മൾ ഒരു വിഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ ചിലപ്പം അതിന് വേണ്ടി കാത്തിരിക്കും അതായത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതായത് അത്രയും കഷ്ടപ്പെട്ട് നമ്മളുറക്കമൊഴിച്ചിട്ടായിരിക്കും നമ്മൾ അത്രക്ക് ശ്രദ്ധയോടെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള അതായത് കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിപണിയിൽ അതിനനുസരിച്ചുള്ള പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുദ്ദേശിച്ച പൈസ കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മളിത്രയും കഷ്ടപ്പെടുന്നത് അത് കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്